എഴുതുമ്പം ഉണ്ടാകുന്ന ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ വശം എന്ന് പറഞ്ഞാൽ നമ്മൾ ആ കണ്ടൻറിൻ്റെ ഭാഗത്താകുന്നു കണ്ടന്റിനെ എക്സ്പ്രെസ്സ് ചെയ്യുന്ന അത് നമ്മൾ ഇങ്ങനെ എതിരുള്ള ആൾ വായിക്കുന്ന ആളെ നമ്മൾ ഇരുത്തണമല്ലോ ഒരു എഴുത്താകുമ്പോൾ അതിനവരെ മനസ്സിലാക്കിക്കണം അപ്പോൾ ആ രൂപത്തിലൊക്കെ നോക്കുമ്പോൾ അതിൻ്റെ കണ്ടൻറ് സൈഡാണ് ഏറ്റവും വലിയ വെല്ലുവിളിയായിട്ട് വെല്ലുവിളി നിറഞ്ഞതായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നത് ഒന്നാമത് അത് അത് വളരെ മെച്ചുവർ ആയിരിക്കണം അതുപോലെ തന്നെ എഴുത്തുകാരന് അട്രാക്റ്റീവും ആകുന്നതാവണം അതിൽ നല്ല നോളേജ് കിട്ടുന്ന അല്ലെങ്കിൽ നല്ലൊരു പുതിയ അത് ആ ഒരു അനുഭവം ആകുന്ന ഒരു വായനക്കാരൻ നിലനിർത്തുന്ന അതിൽ തന്നെ നിലനിർത്തുന്ന കൂടുതൽ വായിക്കാനൊക്കെ പ്രചോദിപ്പിക്കുന്ന ഒരു സാധനമാണല്ലോ അപ്പോൾ ആ കണ്ടൻറ് തന്നെയാണ് ഏറ്റവും വലിയൊരു വെല്ലുവിളിയായിട്ട് നമുക്ക് വരാറുള്ളത് അപ്പോൾ അതിനെ നമ്മൾ മറികടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കാറ് ആ കണ്ടന്റിനെ കുറിച്ച് ശരിക്ക് ഒന്ന് മനസ്സിലാക്കും അതിൻ്റെ നാനാവശങ്ങളും മനസ്സിലാക്കിയിട്ട് ആ ആ ടോപ്പിക്കിനെക്കുറിച്ച് നാനാവശങ്ങളും മനസ്സിലാക്കും എന്നിട്ട് അതിനെ പല രീതിയിൽ നമ്മൾ ഇങ്ങനെ ശ്രദ്ധിച്ച് മനസ്സിൽ വെച്ച് എഴുതി കറക്റ്റ് ചെയ്ത് എടുത്ത് ചെയ്തു കൊണ്ടാണ് നമ്മൾ അതിനെ ഉപയോഗിക്കുക എന്നുള്ളതാകുന്നു പിന്നെ ഉള്ള മറ്റൊരു കാര്യം എന്താണ് വെച്ചാൽ ഈ റൈറ്റെസ് ബ്ലോഗിനെ കുറിച്ചാണ് റൈറ്റേസ് ബ്ലോക്കിനെക്കുറിച്ച് നമുക്ക് അറിയാം റൈറ്റ റൈറ്റേഴ്സ് ബ്ലോക്ക് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ റൈറ്റേഴ്സ് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഒന്നാമത്തത് നമ്മൾ ഈ പെർഫെക്ഷന്ലേക്ക് എത്തുന്നതിൻ്റെ പേടി നമ്മൾ അത് മ പെർഫെക്ഷനിലേക്ക് മതിയായത് ആകൂലെ എന്നുള്ള ഒരു തോന്നലാണ് ഒന്നാമത്തത് ഒരു പ്രൊഫഷണലിസം എന്നൊക്കെ പറയാൻ പറ്റും നമുക്ക് അതിലേക്ക് ഉള്ളൊരു പേടി പിന്നെ രണ്ടാമത്തത് സ്ട്രെസ്സും പ്രഷറും നമ്മൾ ഈ ഡെഡ് ലൈനിലെ നമ്മൾ എത്തിക്കുക ഈ ഒരു ലൈൻ ഉണ്ടാകുമല്ലോ അപ്പോഴത്തേന് നമ്മുടെ കാര്യങ്ങൾ നല്ല സുന്ദരമായിട്ടും വളരെ ഭംഗിയോടെയും അതിനെ പൂർത്തികരിക്കാം എന്നുള്ളൊരു പ്രശ്നം അവിടെ നമുക്ക് ഒരുപാട് പേസനാൽ ഇഷ്യൂ ഫോക്കസ് ചെയ്യാനുള്ള ഒരുപാട് പൈസണൽ ഇഷ്യൂസ് വരും അപ്പം അതിൻ്റെ ഒരു സ്ട്രെസ്സും പ്രഷറും ഉണ്ടാകും പിന്നെ നമുക്ക് ഇതിൽ വരുന്ന ഏതിൽ വരുന്ന ഇൻസ്പിറേഷൻ്റെ കുറവുകൾ നമുക്ക് അതിലേക്ക് പ്രചോദനം കുറയുന്ന ഒരു കാര്യങ്ങളുണ്ടാകും പിന്നെ നമുക്ക് സ്വന്തം ഡൗട്ട് അടിക്കുന്ന ചില സമയങ്ങളുണ്ടാകും നമ്മൾ എഴുതുന്നത് ഗുഡ് ആണോ അതുപോലെ തന്നെ വാല്യബിൾ ആണോന്നുള്ളത് നമുക്ക് സ്വന്തം തന്നെ എന്താണ് ചിന്തിക്കേണ്ടി വരുന്നത് സ്വന്തം തന്നെ സംശയം ഉണ്ടാകുന്നൊരു അവസ്ഥ ഉണ്ടാകും അപ്പം അതിൽ തന്നെ അത് പോലെ തന്നെ ഓവർ വർക്ക് കൊണ്ട് ഉണ്ടാകുന്ന മെൻറൽ പ്രശ്നങ്ങളും ഇതിൽ വരുന്നതാകുന്നു ഇതിന് ഓവർ കം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് എന്തൊരു എഴുതുന്ന സമയത്ത് കുറച്ച് ഒരു ഷോട്ട് ബ്രേക്ക് എടുക്കുക അതുപോലെ തന്നെ ഈ സ്ഥലം ഈ എൻവറോൺമെൻറ്റിലൊക്കെ ഒന്ന് മാറ്റി പിടിക്കുക സാഹചര്യമൊക്കെ ഒന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട് നല്ല കാറ്റും വെളിച്ചമൊക്കെ കിട്ടുന്ന ഒരു സൈഡിൽ പോയിരുന്നു കൊണ്ട് നല്ല റിലാക്സ ആയിട്ട് എഴുതാൻ നല്ലതാകുന്നു പിന്നെ എഴുതുമ്പം ഒരു ഫ്രീ റേറ്റിങ്ന് ശ്രമിക്കുക എന്നുള്ളതാകുന്നു പിന്നെ അതുപോലെ തന്നെ പ്രഷർ ഇല്ലാതെ അതിൽ ഫോക്കസ് ആകുന്നത് പെർസനൽ ഇഷ്യൂ ഒക്കെ മാറ്റി വെച്ച് മനസ്സ് ശാന്തമാക്കിയിട്ട് അതിന് ഇരിക്കുക എന്നുള്ളതാകുന്നു പിന്നെ നമ്മൾ ഒരു ചെറിയ ഒരു സിമ്പിള ആയിട്ടുള്ള ഒന്ന് റിയലിസ്റ്റിക്ക് ആയിട്ടുള്ള റേറ്റിംഗ ലക്ഷ്യങ്ങൾ കൊണ്ട് വരാമെന്നുള്ളതാകുന്നു പിന്നെ നമ്മൾ ഒരുപാട് ബുക്കുകൾ വായിക്കുക ഫിലിമുകൾ കാണുക പിന്നെ എന്താണ് ക്രിയേറ്റിവിറ്റി ഉണർത്തുന്ന ഒരുപാട് ബുക്കുകളും ഫിലിമുകളും കാണുക എന്നുള്ളതാകുന്നു പിന്നെ എന്താണ് ബാക്കിയുള്ള റൈറ്റേഴ്സിനോട് കൂടെ സംസാരിക്കുക അവരുടെ ഗ്രൂപ്പുകളിലും ജോയിൻ ചെയ്യുക എന്നുള്ളതൊക്കെയാണ് കാര്യങ്ങൾ